ആ ചേച്ചീ എന്തായി നമ്മുടെ വാർപ്പും കാര്യങ്ങളും കഴിഞ്ഞോ

ആ നമ്മൾ അന്നു പൈപ്പിട്ടു വച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വയറിങ്ങേ വേണ്ടൂ അപ്പോൾ നമ്മളെ അന്നു പറഞ്ഞ കണക്ക് എനിക്കോർമ്മയില്ല നമുക്ക് ഒന്നുംകൂടി നോക്കാം നമുക്കിപ്പോൾ എത്ര ആറു റൂമല്ലെയുള്ളത് ഇവിടെ കിച്ചൺ സിറ്റ് ഔട്ടിലേക്ക് വേറെ പിന്നെ മുകളിലേക്കും വേണം അല്ലേ നമുക്ക് ഒന്നുകൂടി നോക്കട്ടെ അപ്പോൾ ഏകദേശം നമുക്ക് വയറിങ്ങിൻ്റെ ഒരു രണ്ട് മൂന്ന് ബോക്സ് ഓർമ്മ കിട്ടുന്നുണ്ടോ നോക്കട്ടെ ഒരു നാന്നൂറ് ചുവപ്പിൻ്റെ ഒരു നൂറു മീറ്റർ അതായത് മറ്റേ എന്ത പറയുക എർത്തിനു വേണം അതിനു ന്യൂട്രൽ വേണം ആ മൂന്ന് സെറ്റിൻ്റേയും കറുപ്പ് ചുവപ്പ് പച്ച മൂന്ന് വയറിൻ്റേയും ഒരു നൂറു മീറ്റർ വച്ചു എടുത്തോളൂ കേട്ടോ ആ ശരി അങ്ങനെയാണല്ലെ കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ആ ലിസ്റ്റ് തന്ന അന്ന് ഓർമ്മ ഉണ്ടോ അന്ന് തന്നു ഇല്ലല്ലോ ഞാൻ അന്ന് ആർക്കാണ് കൊടുത്തത് ആ ഒരു മിനിറ്റ് രണ്ട് എം എൽ സി ബി വേണം ഫാൻ എല്ലാ റൂമിലും വേണോ അതോ എ സിയുള്ള റൂമിൽ ഫാൻ വേണ്ടേ എങ്ങനെയാണത് അതിൻ്റെ കാര്യങ്ങൾ ആ മറ്റേ മാസ്റ്റർ ബെഡ് റൂമിലേക്ക് എ സിയാണല്ലോ അല്ലെ ആ ഓക്കേ മാസ്റ്റർ ബെഡ് റൂമിലേക്ക് എ സിയാണ് വരുന്നത് അപ്പോൾ അവിടെ രണ്ട് മൂന്ന് സ്വിച്ച് വേറെ വയ്ക്കണം ഡൈരെക്ട് എം എൽ സി ബി അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ വേണ്ടി വരും ഓക്കെ നമുക്ക് എപ്പോഴത്തേക്കാണ് ചെയ്തു തീർക്കേണ്ടത് ചേച്ചീ നമ്മുടെ ഓ ഇരുപത്തഞ്ച് അടുത്താണല്ലോ പണി കിട്ടും നോക്കാം പിന്നേ ഒരു മിനിറ്റ് ചേച്ചി ഞാൻ ആ ലിസ്റ്റൊന്നു നോക്കട്ടെ കേട്ടോ ഇപ്പോൾ വയർ എല്ലാം കൂടിയിട്ടൊരു സ്വിച്ചും കാര്യങ്ങളും വേണ്ടി വരും കുറച്ച് പോട്ടേ ആ പിന്നെ മറ്റേ വേറെ സ്വിച്ചൊക്കെ നോർമൽ സ്വിച്ചല്ലേ നമ്മളന്നു പറഞ്ഞത് ഫാഷൻ്റെ അങ്ങനത്തെ ഒന്നും വേണ്ടല്ലോ നോർമൽ സ്വിച്ച് അല്ലെ വേണ്ടൂ അതല്ലേ വേണ്ടു അപ്പോൾ കുഴപ്പമില്ല നമുക്ക് ആ വലിയ വിലയില്ലാണ്ട് നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് എടുക്കാം അതു പിന്നെ മോട്ടറൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അന്ന് മോട്ടർ പറഞ്ഞ് അതെയല്ലേ എന്നാൽ നമുക്ക് പോകുകയാണെന്നു പറഞ്ഞാൽ ഒരുമിച്ചങ്ങോട്ട് എടുത്തിട്ടു വരാം പറഞ്ഞിട്ട് ഏതാണ് ഉള്ളത് പഴയ മോട്ടറാണോ മോട്ടറല്ലേ അത് പഴയത് ആ അതിനൊക്കെ നമുക്കൊരു പുതിയ മോട്ടർ എടുക്കണതാണ് നല്ലത് കേട്ടോ ഏഹ് വെള്ളത്തിലിറക്കി വയ്ക്കാൻ പറ്റണത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല വെള്ളം ഇപ്പോൾ താഴ്ന്നിട്ടുണ്ടെന്നാലും പ്രശ്നം വരില്ല അതിനു ഇപ്പോൾ അത്ര വിലയൊന്നും വരില്ല അഞ്ചു ഉറുപ്പിക അത്രയേ വരുണുള്ളൂ വാറണ്ടിയും കാര്യങ്ങളൊക്കെയുള്ളത് നല്ല പമ്പിൻ്റെ സാധനങ്ങൾ കിട്ടും നല്ല കമ്പനീൻ്റെ ആ മറ്റേത് വേണമെങ്കിൽ ഇപ്പോൾ അത് പഴയ സാധനം ആയതുകൊണ്ട് കൂടുതൽ കറണ്ടും വലിക്കും ഇപ്പോഴത്തെയൊക്കേ പുതിയ ടെക്നോളജിയല്ലേ അപ്പോൾ കറണ്ട് വലിക്കണതും കമ്മിയാകും ആ അപ്പോൾ ഒരു ഉപകാരമുണ്ട് വേണമെങ്കിൽ അതു നമുക്ക് നോക്കാം ഞാനെന്തായാലും ഇതിന്റെ ലിസ്റ്റൊന്നെഴുതട്ടെ ഒരു വയറും കാര്യങ്ങളും സ്വിച്ച് ബൾബ് ബൾബും ലൈറ്റും അതൊന്നും മേടിച്ചിട്ടില്ലല്ലോ ട്യൂബ് ലൈറ്റൊന്നും മേടിച്ചിട്ടില്ലലോ ആ ഓക്കേ അപ്പോൾ നമുക്ക് അതും റെഡിയാക്കാം രണ്ട് മറ്റേ മിനി ട്യൂബ് ലൈറ്റും മേടിക്കാം ലെങ്ങ്ത്തുള്ള എൽ ഇ ഡീൻ്റെ ട്യൂബ് ലൈറ്റ് വേറെ മേടിക്കാം കേട്ടോ അപ്പോൾ നാലു ബൾബ് ലിസ്റ്റ് നോക്കട്ടെ ആ ആ ഇതിപ്പോൾ ഏകദേശമൊരു നാല്പത് അമ്പത്തിൻ്റെ ഉള്ളിൽ വരും ചേച്ചി എല്ലാം കൂടി

ശരി ശരി ശരി ഞാൻ ആ ബില്ലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചുതരാം ഞാൻ ലിസ്റ്റ് അവർക്ക് അയച്ചു കൊടുക്കാം അവരു നേരെ വണ്ടി സാധനം വണ്ടിയിൽ കയറ്റി വിട്ടോളും നമ്മളങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അറിയണ പരിചയമുള്ള കടയിൽ തന്നെയാണ് ഇപ്പോൾ എന്തെങ്കിലും മാറ്റം മാറ്റി മേടിക്കേണ്ടിയൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ശരി ചേച്ചി അപ്പോൾ ചേട്ടനോട് പറയൂ വന്നുയെന്ന് പറഞ്ഞാൽ മതി